കേരളത്തിലെ ആളുകൾ അവർ അവരുടെ സംസ്കാര രീതി മീൻസ് പൈതൃകം മീൻസ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മീൻസ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത് കാരണം നമ്മൾ ഓണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓണത്തിൻ്റെ കേരളത്തിലാളുകൾ ആളുകൾ പൊതുവെ ഈ കൂട്ടർ കൂട്ടായ്മ്മ അതിനൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് പറയുക മീൻസ് ഭയങ്കരമാായിട്ട് കൂടുന്ന ആൾക്കാരാണ് അതായത് കൂട്ടത്തിലുള്ള ആൾക്കാരായിട്ട് കൂടാനൊക്കെ കേരളത്തിലെ ആൾക്കാർ കുറച്ച് കൂടി മുൻപന്തിയിലാണ് അപ്പോൾ വിഷു ഓണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേക പ്രത്യേക ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരോ ദിവസങ്ങൾ വരുമ്പോൾ അന്ന് ഒന്നു കൂടി അവരുടെ ആ ഒരു എന്താണ് സൗഹൃദത്വം അല്ലെങ്കിൽ അതൊക്കെ കൂടും അപ്പോൾ ഓണം വരുന്ന ആ ഒരു ടൈമിൽ എല്ലാവരും ഒത്തുകൂടി അതിൽ എല്ലാവരും ഒരുമിച്ച് മീൻസ് ഓണസദ്യ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പൂക്കളം ഒരുക്കാനുമൊക്കെ എന്താണ് ഒരു വീട്ടിൽ ഇപ്പോൾ ഏട്ടനും അനിയത്തിയുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി പോയി കൊണ്ട് പൂക്കൾ പറിച്ച് ആ ഒരു മീൻസ് കുടുംബമഹിമ കുടുംബമഹാത്മ്യം അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ പറയാറ് പറയാറുണ്ട് പറയാറുണ്ടല്ലോ നമ്മൾ ആ ഒരു സംഭവം കൂട്ടുന്നതിന് കേരളത്തിലെ പിള്ളേർ അന്നും ഇന്നുമൊക്കെ ഒരു പോലെ അന്നും ഇന്നുമൊക്കെ ഒരു പോലെ അടിപൊളിയാണെന്ന് പറയാം അതുപോലെ തന്നെ പാചക രീതി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കേരളത്തിലെ ആളുകളെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ പെട്ടെന്ന് മീൻസ് എന്താണ് ഒരു ഒത്തൊരുമ എല്ലായിടത്തും എവിടേയും ഉണ്ടാവും അപ്പം സാംസ്കാരിക പൈതൃകം കേരളത്തിലെ ആളുകൾക്ക് ഇങ്ങനെ ഓരോരോ ഓണം വരുമ്പോഴും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിക്ക് തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് അവർ അന്നും ഇന്നുമൊക്കെ കൊണ്ട് പോകുന്നത് ഇന്നത്തെ കാലത്തെന്ന് പറയുക ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂക്കൾ ഒരുക്കാനും പൂക്കൾ ഇല്ലാത്ത ഒരവസ്ഥ അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോൾ അവർ എന്നും ഒരുപോലെയാണ്